പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ധാരാളമാളുകൾ അമ്പൂരി എന്ന നമ്മുടെ കൊച്ചു ഗ്രാമ വളരെയധികം പച്ചപ്പ് നിറഞ്ഞതും നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമാണ് എൻ്റെത് എവടെ നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കുന്നുകൾ പച്ച പച്ച പച്ചപ്പ് നിറഞ്ഞ് ഇരിക്കുന്ന മലരണിക്കാടുകൾ കിളികളുടെ കള കള ശബ്ദം എന്ത് കൊണ്ടും പ്രകൃതിരമണീയമായ ഒരു നാടാണ് എൻ്റെ ഈ കൊച്ചുനാട് എൻ്റെ നാടിൽ വളരെയധികം ആളുകൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആയിട്ട് തീർത്ഥ ആളുകൾ നമ്മുടെ നാട് കാണാനായിട്ട് പുറത്തുനിന്ന് ധാരാളം ആളുകൾ അനുദിനം ഇവിടെ വരാറുണ്ട് വന്ന് ഇവിടുത്തെ പ്രകൃതിഭംഗി അനുസരിക്കാൻ മൂന്നാറിൻ്റെയൊക്കെ ഒരു രമണീയത നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടും എവിടെ നോക്കിയാലും നല്ല ഉയർന്ന് നിൽക്കുന്ന മാനം മുട്ടേ ഉയർന്ന് നിൽക്കുന്ന മരങ്ങൾ പിന്നെ പല തരത്തിലും പല വലുപ്പത്തിലും ഉള്ള വൃക്ഷലതാദികൾ അതൊക്കെ അങ്ങനെ അതെല്ലാം കൊണ്ടും സമ്പൽസമൃദ്ധമായ എൻ്റെ കൊച്ചു ഗ്രാമം ധാരാളം ആളുകൾ ഇവിടെ അനുദിനം ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽനിന്നും വിദേശത്തുനിന്നും ആളുകൾ ഇതിനായി ഗ്രാമത്തിൽ എത്താറുണ്ട് അത്രയ്ക്കും പ്രകൃതിരമണീയമാണ് കാരണം വളരെയധികം നല്ലൊരു തണുത്ത അന്തരീഷമാണ് ചൂട് ഒന്നുമില്ല എപ്പോഴും നല്ല കാറ്റും ഒക്കെ പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലമാണ് ശുദ്ധവായു ശ്വസിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഇടമാണ് എൻ്റെ ഈ കൊച്ചു ഗ്രാമം ഇവിടെ നിന്നും വന്നാൽ മിക്ക ആൾക്കാർക്കും വിട്ടു പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ സുന്ദരമാണ് ഇവിടുത്തെ കാലാവസ്ഥ എല്ലാദിവസവും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് ഒരു കണ്ണിന് ഒരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് പശുക്കളും രാവിലെ നോക്കുമ്പോൾ പശുക്കൾ പറമ്പിലേക്ക് അഴിച്ചു വിടുന്നു അവയ്ക്ക് ഭക്ഷിക്കാൻ ആയിട്ട് ധാരാളം പുല്ല് പറമ്പിൽ കാണാം അതുപോലെ റബ്ബർ വെട്ടാൻ ആൾക്കാർ ധാരാളം റബ്ബറുകൾ ഉണ്ട് തെങ്ങ് വളരെയധികം തെങ്ങുകൾ ഉണ്ട് അതുപോലെ വാഴകൃഷി കവുങ്ങ് കൃഷി പച്ചക്കറി കൃഷി അങ്ങനെയെല്ലാം ധാരാളം പിന്നെ ചേന ചേമ്പ് കാച്ചിൽ തെങ്ങ് മാതളനാരങ്ങ വേറെ റമ്പൂട്ടാൻ അങ്ങനെ അങ്ങനെ കപ്പ കൃഷി ഇങ്ങനെ ധാരാളം കൃഷികൾ കൊണ്ട് സമ്പൽസമൃദ്ധമാണ് ഈ കൊച്ചു ഗ്രാമം ഈ കൊച്ചു ഗ്രാമത്തിൽ മനോഹരമായ കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ട് സുന്ദരമായത് സുന്ദരമായ കൊച്ചു കൊച്ചു വീടുകളും നല്ല നല്ല പള്ളികൾ അപ്പോൾ അനുദിനം ഈ ഞങ്ങളെ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആയിട്ട് നമുക്ക് ഒക്കെ ഭാഗ്യം കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ ഒരു നമുക്ക് ഈ സമയത്ത് ഞാൻ ഒരു ഗാനം ഓർക്കുകയാണ് ഒരു സുഗതകുമാരിയുടെ ഒരു വരി എൻ്റെ മനസ്സിൽ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്ക് അച്ഛനുവേണ്ടി ഒരു തൈ നടാം നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി അപ്പോഴ് നമ്മൾ നമ്മുടെ എന്താ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അനുദിനം എന്തെങ്കിലും വൃക്ഷത്തിൻ്റെ മര വൃക്ഷത്തിൻ്റെ തൈകളൊക്കെ നട്ട് നമ്മുടെ ഈ പ്രദേശത്തെ വെറുതെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ നല്ല മനോഹരമായി തീർക്കുന്ന എന്തുകൊണ്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു നാടാണ് നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത് ഒരു വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു എൻ്റെ നാട് എത്ര സുന്ദരം എത്ര മനോഹരം എത്ര സുന്ദരം